ഇപ്പോൾ ഒരു നല്ല അതായത് ഇപ്പം പല രീതിയിലുള്ള കളികൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ ആണെങ്കിലും ഇപ്പോൾ ലോകത്ത് തന്നെയാണേ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ച് നിർത്താൻ പറ്റുന്ന കളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഫുട് ബോൾ കളിയാണ് കൂടുതലായിട്ടും ലാസ്റ്റ് മിനിറ്റ് വരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ചിലപ്പോൾ ഓരോ സെക്കന്റിലും ചിലപ്പം ഗോളുകൾ വീഴാനുള്ള ചാൻസും കാര്യങ്ങളും ഒക്കെ കൂടുതലാണിപ്പം കേരളത്തിൽ കേരളത്തിൽ അഭിമുഖരിച്ച് കേരളാ ബ്ലാസ്റ്റേഴ്സും അങ്ങനെ പല രീതിയിലുള്ള ഫുട് ബോൾ കളിക്കാരൊക്കെ അതിലുണ്ട് അപ്പം അതൊക്കെ കാണാൻ നല്ല രസമാണ് കാരണം ചില അവസാന സെക്കൻഡുകളിലൊക്കെ ചിലപ്പോൾ ഗോളും കാര്യങ്ങളൊക്കെ വീഴും അപ്പം അവസാന മിനിറ്റിൽ ചിലപ്പോൾ എന്താ സംഭവിക്കുക എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം ഫുട് ബോൾ കളിയാണ് കൂടുതലായിട്ടും അവസാന മിനിറ്റിൽ വരെ നമുക്ക് കാണാൻ പറ്റിയ ഒന്ന് പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റ് പക്ഷെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എങ്ങനെയായിരിക്കും പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പം ഒന്നോ രണ്ടോ റൺസ് എടുക്കേണ്ട സമയവും ഒരു ബോൾ ഉണ്ടാകുന്ന സമയം ഒക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റേഷനിൽ അർത്ഥമില്ലാണ്ടായി പോകും കാരണം അതൊക്കെ ചിലപ്പോൾ ഒരു മിനിറ്റിലൊക്കെ ചിലപ്പം മാറാനുള്ള ചാൻസ് ഉണ്ടാകും നമ്മൾ ഒരു സിക്സ് അടിച്ചാൽ ജയിക്കാവുന്ന കളിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സിക്സ് ചിലപ്പോൾ ഇത് റണ്ണ് പോലും എടുക്കാൻ പറ്റാണ്ട് ചിലപ്പോൾ നമ്മൾ തോൽവിയുടെ ഇതിലെത്തും പക്ഷെ അങ്ങനത്തെ കുറേ കളികളുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാ ഒരു ഇതാണ് അവസാനം വരെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്ന കളികളാണ് ഫുട്ബോളും ക്രിക്കറ്റും എന്നൊക്കെ പറഞ്ഞാൽ